ഞാന്ന ഇന്നു മുതൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ എൻ്റെ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ അതിന് സഹായകരമല്ല കാരണം നെറ്റ് ഭയങ്കര ഞാൻ ബി എസ് എൻ എൽൻ്റെ നെറ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് വളരെ തീരെ സ്ലോയിലാണ് പോകുന്നത് അതുകൊണ്ട് എൻ്റെ ജോലിക്കും തടസ്സമാകുന്നു മീറ്റിംഗ്കൾക്ക് ഒക്കെ കയറുമ്പോൾ കോള് കട്ട് ആകുന്നു അത് എൻ്റെ മേലുദ്യോഗസ്ഥനിൽനിന്നും എനിക്ക് വഴക്ക് കേൾക്കാൻ ഇടയാകുന്നു ആയതിനാൽ എനിക്ക് എൻ്റെ ഈ ഓൺലൈൻ സംവിധാനം മാറ്റി പുതിയൊരു നെറ്റ്വർക്ക് സംവിധാനത്തിലേക്ക് മാറണമെന്നുണ്ട് അതിന് ഏറ്റവും നല്ല ഏറ്റവും നല്ല നെറ്റ്വർക്ക് സംവിധാനം ലഭിക്കുന്ന മറ്റ് ഏതെങ്കിലും ഓപ്ഷനിലേക്ക് മാറാൻ എനിക്ക് അതിൻ്റെ പ്ലാനുകൾ അറിയണം ഒരു ദിവസം തന്നെ പല മീറ്റിംഗുകളും ജോലി ആണെങ്കിലും എയ്റ്റ് അവേഴ്സിൽ കൂടുതലൊക്കെ ചിലപ്പം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അതിന് സഹായകരമല്ല നെറ്റ്വർക്ക് സംവിധാനം അതുകൊണ്ട് ഏറ്റവും നല്ല പ്ലാൻ കിട്ടുന്ന ജിയോ അല്ലെൽ വോഡഫോൺ പോലുള്ള ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് സേവനം എനിക്ക് ആവശ്യമാണ് അതിന് ഏറ്റവും നല്ല പ്ലാൻ എനിക്ക് ഒരു ദിവസം കുറഞ്ഞത് ഒരു നല്ല ജി ബി എനിക്ക് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു പാക്കേജ് എനിക്ക് ലഭിക്കണം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കമ്പനിയിൽനിന്ന് ആലോചിക്കുന്നുണ്ട് എന്തായാലും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് വൈഫൈ കണക്ഷൻ വീട്ടിൽ ആവശ്യമാണ് അത് എന്തായാലും ഞാൻ മറ്റ് ഏതെങ്കിലും ബി എസ് എൻ എൽൻ്റെ ഒഴിച്ചുള്ള വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കണക്ഷൻ ആണ് ഞാൻ നോക്കുന്നത് അതിന് എനിക്ക് എൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് തരാൻ സഹായം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് തരണം എന്നാലേ എനിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ അല്ലങ്കിൽ മിക്കവാറും കോളുകൾ കട്ട് ആകും എനിക്കത് തുടർന്ന് ചെയ്യാൻ സാധിക്കില്ല അതുവഴി മേലുദ്യോഗസ്ഥരുമായിട്ട് പിണങ്ങേണ്ടതായിട്ട് വരുന്നു അതെല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നു അതുകൊണ്ട് എത്രയും എളുപ്പം ഒന്ന് നല്ല ഒരു പ്ലാൻ അതായത് ഒരു വർഷത്തേക്ക് പാക്കേജ് ആയിട്ട് ഒരു വൈഫൈ കണക്ഷൻ എനിക്ക് കിട്ടണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് കമ്പിനികൾ പറഞ്ഞു തരേണ്ടതാണ് ആവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് എനിക്ക് സാധ്യമാക്കി തരണം കാരണം എനിക്ക് എന്നും വർക്ക് ഉണ്ട് ഞാനൊരു നല്ലൊരു പദവിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നതുകൊണ്ടും പല കാര്യങ്ങളിലും ഡിലേ വരുന്നു നോട്ടുകൾ അയക്കേണ്ടതും ക്യാഷ് റിസിവ് ആവുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എനിക്ക് എനിക്ക് ലഭിക്കാതെ വരുന്നു അത് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എൻ്റെ വീഴ്ചയാണെന്നാണ് ഉദ്യോഗസ്ഥൻ്റെ പറച്ചിൽ അപ്പം അതുകൊണ്ട് അതിനെ ഒഴിവാക്കാനായി എനിക്ക് ഏതെങ്കിലും നല്ല ഒരു നെറ്റ്വർക്ക് സംവിധാനം ലഭിക്കണം അതിനായി ഏറ്റവും ഞാൻ ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഐഡിയ വോഡഫോൺ ഐഡിയ ആണ് കാരണം വച്ചാൽ അത് എല്ലായിടത്തും എപ്പഴും ലഭ്യമാണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇപ്പോൾ വരുന്നില്ല പലരും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് എന്നോട് പറയുന്നു ഞാനും അത് തന്നെ പ്രിഫറ് ചെയ്യുകയാണ് എനിക്ക് ഒരു വർഷത്തെ പാക്കേജ് അതിൻ്റെ ആവിശ്യമാണ് അതിന് ഒരു വർഷം അടക്കേണ്ട തുക എത്രയാണ് കമ്പനികളെല്ലാം വിശദമായിട്ട് പറഞ്ഞാൽ അതിന് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും